ആ ആ ആ

അത് ഞാനിപ്പോൾ ഓനെ കുറച്ചു മാറ്റി നിർത്തിയിട്ടുണ്ട് പുറത്ത് നിന്ന് എന്തിനാണെന്ന് പറഞ്ഞാൽ ഓൻ കുറച്ചു പഠിത്തത്തിൽ കുറച്ചു ബാക്കിലോട്ടാണിപ്പോൾ അതിപ്പം കുറച്ചു അത് സ്പോർട്ടിസിലെല്ലാം പോകുന്നതിന് കുറച്ച് മാറ്റി നിർത്തിയിട്ടാണുള്ളത് അതു കൊണ്ടാണ് പേര് കൊടുക്കാത്തത് അവനു താല്പര്യം ഉണ്ടെന്നു പറഞ്ഞിരുന്നു പക്ഷെ നമ്മൾക്ക് പഠിത്തത്തിനും

അതെയോ ആ ആ ആ എന്നാലും നമ്മൾക്ക് ഇത് ഭാവി നോക്കണ്ടേ നമ്മൾക്ക് ഈ സ്പോർട്സ് മാത്രം പോരല്ലോ പഠിത്തത്തിൽ പിന്നോട്ടായത് കൊണ്ടാണ് ഞാൻ അതെ ആ പറയുന്നത് ശരി തന്നെയാണ് പക്ഷെ അതാണ് ഞാനൊരു അല്ല ഞാൻ ഇതുവരെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഓൻ ഇപ്പോൾ പിന്നെ എന്തായാലും ലാസ്റ്റ് ഇയറല്ലേ അപ്പോൾ എന്തായാലും ഓന് ഒന്ന് കോൺസെൻട്രേഷൻ ചെയ്താൽ നല്ലത് പറഞ്ഞിട്ടാണ് കുറച്ച് മാറ്റി നിർത്താം മാറ്റി നിർത്തിയത് ഓനെ

ആ ആ നോക്കാം ഇനി ഇപ്പോ ഓൻ അടുത്ത നല്ലൊരു പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഓൻ അല്ല നിങ്ങൾക്ക് ആ അതിന് അതിന് ചെറിയൊരു പിന്നെ നിങ്ങൾ അതിനും ചെറിയൊരു ഇത് കൊടുത്താൽ പ്രോത്സാഹനം കൊടുത്താൽ അതു ആ എന്നാൽ നമുക്കൊന്ന് ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി ആ ചെയ്യാം ചെയ്യാം ഓക്കെ ആ ആയിക്കോട്ടെ ശരി